നമസ്കാരം ഞാൻ എൻ്റെ വീടിൻ്റെ കൂരയിൽ ഒരു സോളാർ പാനല് വയ്ക്കാനായിട്ട് ഇങ്ങനെ പദ്ധതിയിടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന വൈദ്യുതി ഗ്രിഡിലോട്ട് കൊടുക്കാനും എനിക്ക് ഒന്നു അപേക്ഷിക്കണമായിരുന്നു അപ്പം ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു വർക്ഷോപ്പ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഇതിനെപറ്റി ഒരു റിന്യൂവൽ എനർജിയുടെ ഒരു ക്ലാസ് അപ്പോൾ അതെനിക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നു കൂടി ഒന്ന് പറയാമോ അതുപോലെ തന്നെ ഞാൻ ഈ ഇതിൻ്റെ ആപ്ലിക്കേഷനും ഈ എക്സ്ട്രാ വരുന്ന വൈദ്യുതി ഈ ഗ്രിഡിലോട്ട് കൊടുക്കാനുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് കൂടി ഒന്ന് പറയാമോ എന്നാൽ നല്ല ഉപകാരം ആയേനെ